വീട്ടില് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ അടച്ച് വാരണതും തുടയ്ക്കുന്നതുമൊക്കെ മറ്റേ തുടയ്ക്കുന്ന തുണി അല്ലെങ്കിൽ കോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മള് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യണത് അങ്ങനെ ചാണകം മെഴുകിയ വീടുകളിപ്പോൾ ഇപ്പോൾ അധികം കുറവാണ് നമ്മുടെ ഇവിടെ ഒക്കെ അതിന് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം അതൊക്കെ വളരെ അധികം കുറവാണ് കുറെ നാളുകൾക്ക് മുമ്പ് പണ്ടൊക്കെ ആയിരുന്നു ചാണകം മെഴുകിയിട്ടും ഓല മേഞ്ഞ വീടുകളിലൊക്കെ എല്ലാവരും താമസിക്കുകയു ജീവിച്ചേക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം എല്ലാം ടൈൽസും ഗ്രാനൈറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് വീട് നിർമ്മിക്കുകയും ത ആളുകള് താമസിക്കുകയും ചെയ്യുന്നത് ചാണകം മെഴുകി ഒക്കെ ഉള്ള വീടുകളിലെ അല്ലെങ്കിൽ ഓട് മേഞ്ഞോ അല്ലെങ്കിൽ ഓല മേഞ്ഞിട്ടൊക്കെ ഉള്ള വീടുകളില് താമസിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അസുഖങ്ങളെങ്ങനെ വന്നതായിട്ട് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല ഇനി എന്തെങ്കിലും തന്നെ സ്കിൻ അലർജി സ് കാര്യങ്ങളല്ലാണ്ട് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കൂടുതല് ഇത് ഉണ്ടായിട്ടുള്ളു കാരണം ചൂടിനെ നിയന്ത്രിക്കാനും അമിതമായിട്ടുള്ള ചൂടൊന്നും നമുക്ക് ഇപ്പഴത്തെ പോലെ ചൂടൊന്നും അങ്ങനെ ഒരുപാട് കൊള്ളണ്ട വന്നിട്ടില്ല കാരണം ഓടായാലും ചാണകമൊക്കെ ആയാലും തണുവ് നമുക്കൊരു തണുവ് തരും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ടൈൽസ് ഗ്രാനൈറ്റോ അങ്ങനെ ഉള്ള ഇതിൽ നിന്നൊന്നും നമുക്കങ്ങനെ ഇത് കിട്ടണില്ല കാരണം ചൂട് നമുക്ക് തങ്ങി അതില് തങ്ങി നിൽക്കുന്ന അതും ഭയങ്കരമായിട്ട് ചൂടാവുക എന്നല്ലാണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു തണവ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എപ്പോഴും നല്ലത് ചാണകം മെഴുകിയതും അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ട് പോകാൻ അതായത് മെയിൻറ്റയിൻ ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടാണെന്നെണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരുന്നു മോശമെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല